ഹലോ ആ മേഡം ഞാൻ ഇൻഷുറൻസ് ഏജൻസിയിൽ നിന്ന് വിളിക്കുകയാണേ ആ മാഡം ഒരു സമ്പാദ്യ പദ്ധതിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ പദ്ധതിയെപ്പറ്റി സ്റ്റേറ്റ് ബാങ്കിൻ്റെ എസ് ബി ഐ ലൈഫിൻ്റെ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാൻ മ്മ് മാഡം പല പല നല്ല കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ളതും അതുപോലെതന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഹെൽത്ത് ഇൻഷുറൻസായിട്ടുള്ള ഇതും അതുപോലെ തന്നെ സമ്പാദ്യം എന്നു വെച്ചു കഴിഞ്ഞാൽ പെൻഷൻ സ്കീം അങ്ങനെ പല പല സ്കീമുകൾ ഈ അ ഇതിലുണ്ട് മാഡത്തിന് ഏതിനോട് ചേരാനാണ് താല്പര്യം ആ മന്തിലിയായിട്ട് അടക്കാം നമുക്കല്ലെങ്കിൽ വൺ ടൈം വൺ ഇയർ വൺ ഇയർലി ഒരു പ്രാവശ്യം അടക്കുന്ന സ്കീമുണ്ട് പിന്നെ മന്തിലിയായിട്ട് ചെറിയ സ്കീമുണ്ട് ലാർജ് സ്കെയിലിലെ ഒരു ലക്ഷത്തിൻ്റേത് പത്ത് ഏഴ് വർഷം പത്ത് വർഷം അഞ്ച് വർഷം അങ്ങനെയുള്ള കാലാവധി വെച്ച് അടക്കാവുന്ന സ്കീമുകളൊക്കെ ഉണ്ട് അത് നമ്മുടെ ലൈഫിനു നല്ലതാണ് നമുക്ക് ഒരു എന്തെങ്കിലൊക്കെയൊരു സംമ്പാദ്യം ഇട്ടിരുന്നത് ജീവിതത്തിൽ നല്ലതാണെന്നാണ് ഇപ്പോഴത്തെ തലമുറകൾക്കതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ലോണൊക്കെ തിരക്കി ചെല്ലുമ്പോൾ ലോൺ ആനുകൂല്യം കിട്ടും കാർ ലോൺ അതുപോലെ തന്നെ വീടു വെക്കുന്ന ലോണൊക്കെ കിട്ടും അങ്ങനെയുള്ള ആനുകൂല്യങ്ങളും ഇതിന് ഇവിടെ നമുക്ക് സാധിക്കും ഇല്ലേ ആ മാഡം ഏതി അടവുകൾ മന്തിലിയുണ്ട് ക്വാർട്ടർലിയുണ്ട് എമൗണ്ട് മാഡത്തിന് എത്ര രൂപയുടെ ചെയ്യാനാണ് പ്ലാൻ ഇപ്പം അങ്ങനെയല്ല വർഷം ഒരു വർഷത്തിൽ ഇപ്പം ഏഴ് വർഷം അടുപ്പിച്ച് അടക്കാനാണെങ്കിൽ ഇപ്പം അൻപതിനായിരം വെച്ച് ഒരു വർഷം അടക്കണമെങ്കിൽ അത് നാല് തവണയായിട്ടു വേണേ അടക്കാം അല്ലെങ്കിൽ മാസം അയ്യായിരം വെച്ചൊക്കെയാണെങ്കിലും അടച്ച് അങ്ങനെയും ചെയ്യാവുന്ന സ്കീമുണ്ട് ആ ആ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും അടക്കാം

ആ ഒറ്റ നാല് മാസം വെച്ച് ആ എത്ര വെച്ചു വേണമെങ്കിലും അടക്കാം അല്ലെ ഒറ്റ തവണയായിട്ടും അടക്കാൻ പറ്റും മ്മ് ആ ഒരു വർഷാ നമുക്കതിന് ധാരാളം ബെനിഫിറ്റുണ്ട് എന്നു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് മറ്റുള്ള ബാങ്കുകളെ അപേക്ഷിച്ച് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ സൊസൈറ്റികളെയൊക്കെ അപേക്ഷിച്ച് നല്ല പെർസൻറ്റേജ് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട് ഏ അത് പിന്നീട് കിട്ടുമ്പം നമുക്ക് ലൈഫ് അഷുറൻസായിട്ട് നമുക്ക് അഷുറായിട്ടുള്ള എമൗണ്ട് കിട്ടും എന്തൊക്കെ ലാഭം മരണപ്പെടുകയാണെങ്കിൽ നമ്മളടച്ച ചുരുങ്ങിയതൊരു മൂന്ന് വർഷമെങ്കിലും അത് കറക്റ്റായിട്ടടക്കണം എന്നാലേ നമ്മുക്കതിനകത്ത് സേഫാവുകയുള്ളൂ അല്ലാതെ ഒരു തവണ അടച്ചേച്ചും വിട്ടു കളഞ്ഞാൽ നമ്മുടെ പൈസ നഷ്ടപ്പെടും അതു കൊണ്ട് നമ്മൾ അത് അടക്കാം ചുരുങ്ങിയത് രണ്ട് വർഷം മൂന്ന് വർഷം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും കുഴപ്പം വന്നാൽ പോലും നമുക്കത് മൊത്തം തുകയും അടച്ച പേമെൻറ്റ് തന്നെയല്ല മൊത്തം തുകയും കിട്ടുന്ന രീതിയിലുള്ളത് സ്കീമുകളുമുണ്ട് പിന്നെ ആ അങ്ങനെയുള്ളതു കൊണ്ട് അപ്പം മേഡം അതനുസരിച്ച് ചെയ്യാൻ പറ്റും പിന്നെ പിന്നെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ അതെ ഹെൽത്ത് ഇൻഷുറൻസാകുമ്പോൾ അച്ഛനും അമ്മക്കും മക്കൾക്കും ആയിട്ട് രീതിയിലുള്ള ആരോഗ്യം ഇതു കിട്ടും പരിപാലനം കിട്ടും അങ്ങനെ മ്മ് ആ ആ ഒരു തീരുമാ ആ ഓക്കെ മാഡം താങ്ക് യൂ ആ മറ്റുള്ളവരെയും കൂടിയൊന്ന് അറിയിക്കണം ഈ സ്കീമിലൊക്കെ ചേരണമെന്ന് നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞ് ആ ഒരു പ്രോത്സാഹനം തരണം എന്ന് മ്മ് ഓക്കെ ആ ഓക്കെ മാഡം എന്നാൽ താങ്ക് യൂ എന്നാൽ മാഡം ഒന്നു കൂടെ കണ്ടു